ഒരു നെയ് ഒരു തുന്നൽകാരി എന്നുള്ള രീതിയിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്നു പറയുന്നത് എനിക്ക് ഒരു ബൾക്ക് ഓർഡർ കിട്ടുകയുണ്ടായി ഒരിക്കൽ ഒരു പ്രൊജക്ടിനുവേണ്ടിയിട്ട് എനിക്ക് അഞ്ഞൂറ് സാരികളും അതിൻ്റേതായിട്ടുള്ള ബ്ലൗസ്സുകളും തയ്ച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനത് ഏറ്റെടുക്കുകയും പക്ഷേ അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്നു പറയുന്നത് വളരെ കുറഞ്ഞു സമയം മാത്രമായിരുന്നു അതായത് വെറും ഒരു മാസത്തിനുള്ളിൽ ഒരേപോലത്തെ അഞ്ഞൂറ് സാരികളും അതിൻ്റെ ബ്ലൗസ്സുകളും തുന്നിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അന്ന് ഞാനതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും ഞാനത് ചെയ്തു തരാമെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു എന്നാൽ അതിനകത്ത് വന്ന പ്രശ്നം എന്നു പറയുന്നത് ഞാൻ വിചാരിച്ച സമയത്ത് എനിക്ക് അത്രയും സാരികളെത്തിക്കുവാനായിട്ട് സാധിച്ചില്ല നമുക്ക് ഒരേപോലത്തെ വേണ്ടതുകൊണ്ട് തന്നെ തന്നെ നമുക്ക് അത്രയും പെട്ടെന്ന് അത്രയും ഒരേപോലത്തെ സാരി എത്തിക്കുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എനിക്ക് ആ ഒരു മാസത്തിൽ എനിക്ക് സാരിയെല്ലാം ലഭിച്ച് വന്നപ്പോൾ ആകെ പത്ത് ദിവസം മാത്രമേ പിന്നെ ബ്ലൗസ്സ് തയ്ക്കുവാനായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ആദ്യമൊക്കെ ഞാൻ കുറേ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി കാരണമെനിക്കാകെയിനി പത്തു ദിവസം മാത്രേമേയുള്ളു ഞാൻ ഏറ്റെടുത്ത ഒരു കാര്യമാണ് അതെനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സമ്മർദ്ദത്തിലായിരുന്നു ഞാൻ പക്ഷെ ഞാൻ വിചാരിച്ചു ഞാനേറ്റെടുത്തതാണ് എനിക്കിത് തീർത്തേ പറ്റുള്ളു എന്നുള്ള ഉറപ്പിന്മേൽതന്നെ ഞാൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ ആൾക്കാരോട് എൻ്റെ പ്രശ്നം പറയുകയും എൻ്റെ സാഹചര്യം ഇതൊക്കെയാണ് എന്നു ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അവർ ഏറ്റവും എൻ്റെ അടുത്തുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നേ സപ്പോട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെ അവർ പത്തു ദിവസവും രാവും പകലും എന്നില്ലാതെ അവർ ആ ബ്ലൗസ്സുകളെല്ലാം തയ്ക്കുകയും എത്തിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ എനിക്ക് ഞാൻ പറഞ്ഞിരുന്ന സമയത്ത് തന്നെ എനിക്കത് തിരിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചു അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തിയ എൻ്റെ ഒരു കാര്യമെന്നു പറഞ്ഞാൽ പിന്നീട് ഒരു സമയത്ത് ഇതുപോലെതന്നെ എനിക്ക് എൻ്റെ ഒരു ഉപഭോക്താവെനിക്ക് ഒരു ചുരിദാർ തയ്ക്കാൻ തരികയും ഞാനത് ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ എനിക്കന്ന് സംഭവിച്ചത് ഞാൻ അളവെടുത്തപ്പോൾ കുറച്ച് തെറ്റുകൾ പറ്റുകയും ഞാൻ അവസാനം തയ്ച്ച് വന്ന് ആള് വന്ന് ഇട്ടു നോക്കിയപ്പോൾ അതയാൾക്ക് പാകമല്ലാത്തൊരവസ്ഥയിലുമുണ്ടായി അപ്പം അത് ഏറ്റവും വിലകൂടിയ ഒരു തുണിയുമായിരുന്നു എനിക്കത് തിരികെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന തുണിയുമല്ലായിരുന്നു അപ്പം എനിക്കാകെക്കൂടി ചെയ്യാൻ പറ്റുന്നത് ഇനി അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി ആൾക്കത് പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായുള്ളു ആ ഉപഭോക്താവെന്നോട് അത്രയും നന്നായിട്ട് പെരുമാറിയതുകൊണ്ട് മാത്രമാണ് എനിക്കതിന് സാധിച്ചത് അങ്ങനെ ഞാൻ ആ ഉള്ള സമയം കൊണ്ട് അതിൻ്റെ പാകം മെഷർമെൻ്റ്സെല്ലാം ഒന്നുകൂടി എടുത്തു അയാൾക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് വീണ്ടും തയ്ച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്